ടെൻ്റുകളിൽ താമസിക്കുക എന്നു പറയുമ്പം ടെൻ്റെന്ന് പറയുന്നത് ഒരൂ ചെറിയ ഒരൂ കുടിൽ പോലെയുള്ള സംഭവമാണ് പിന്നെ താമസവും നമുക്ക് നമ്മുടേതായ സൗകര്യങ്ങളൊന്നും നമുക്ക് വീടുകളിൽ താമസിച്ചിരിക്കുന്നത് പോലെ സ്വതന്ത്രമായിട്ട് താമസിക്കാനായ്ട്ട് സാധിക്കില്ല ചെറിയ ലളിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ടെൻ്റുകളിൽ ഇന്ന് താമസിക്കുന്നു ഒരു ആഴ്ച്ച താമസിച്ചു കഴിയുമ്പം നമ്മൾ അതങ്ങ് പൊളിച്ചു വേറെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു അപ്പം തുച്ഛമായ സൗകര്യങ്ങൾ മാത്രം അതിനകത്ത് ശരിക്കും ക്ഷമാശീലം ഉള്ളവർക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു വീടുകളിൽ നല്ല നിലയിലൊക്കെ താമസിച്ചു വിശാലമായിട്ട് ചിന്തിച്ചു ജീവിക്കുന്നവർക്ക് പറ്റത്തില്ല വല ഇടുങ്ങിയ രീതിയിലുള്ള ജീവിതമാണ് എല്ലാത്തിനും ഒറ്റ മുറി അല്ലെങ്കിൽ ഒരു ടെൻറ്റ് മാത്രം ടെൻ്റെന്ന് പറയുമ്പം ഭക്ഷണം പാകം ചെയ്യുന്നതും പിന്നെ താമസവും അങ്ങനെ സ്പെഷ്യല് മുറികൾ ഒന്നുമില്ല എല്ലാം കൂടി ഒരിടത്ത് ഭഷ്ണം ഉണ്ടാക്കുന്നു അവിടെ തന്നെ കിടക്കുന്നു മറ്റ് കാര്യങ്ങളൊക്കെ സാധിക്കുന്നില്ല അങ്ങനെ വളരെ ലളിതമായ രീതിയിലുള്ള ജീവിത രീതിയാണ് അത് ടെൻ്റുകളിൽ താമസിക്കുന്നത് പണ്ട് കാലത്ത് മുഴുവൻ ആൾക്കാർ ഇങ്ങനെ ടെൻ്റുകളിലാണ് താമസിച്ചിരുന്നത് കൊണ്ടിരിക്കുന്ന ഇപ്പോഴാണ് വലിയ വലിയ വീടുകളും വാടക വീടുകളും സ്വന്തം വീടുകളും എല്ലാം ഉള്ളത് കൊണ്ട് ചെറുതായ രീതിയിൽ ഉള്ള താമസങ്ങൾ ഇപ്പം നിലവിൽ ഇല്ല എല്ലാം വിശാലമായ രീതിയിലാണ് ഇപ്പം ചെറിയ ചെറിയ സംവിധാനത്തിൽ താമസിക്കാൻ ഇപ്പോഴുള്ള ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല അവർ അങ്ങനെയുള്ള പ്രാപ്തി നേടിയിട്ടില്ല ഇപ്പോഴുള്ള കുട്ടികളാണെങ്കിൽ ഒട്ടും തന്നെ ഇല്ല പണ്ട് കാലത്ത് ഒരു പത്ത് അമ്പത് വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള ഏത് രീതിയിലുള്ള ജീവിത രീതിയും കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അവർ എത്ര മാത്രം എളിയ രീതിയിൽ കൂടെയാണ് ജീവിച്ചു പോയത് തുച്ഛമായ സൗകര്യങ്ങൾ കൊണ്ട് എത്ര നാൾ ജീവിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല അന്ന് ഇന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു കുഞ്ഞുങ്ങളും വലിയവർക്കും ഒന്നും അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ കൂടെ അറിയത്തില്ല അവർ എത്ര മാത്രം വിശാലമായിട്ട് ജീവിക്കുന്നവരാണ് ഒരു വീട് മുഴുവനും ഉണ്ടെങ്കിൽ പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മാറി അത്രമാത്രം കാലം പുരോഗമിച്ചു ഒന്നിനും ഒരു കുറവില്ല ആർക്കും ഒന്നിനും കുറവില്ല എങ്ങനെ വേണമെങ്കിലും ഇഷ്ടം അനുസരിച്ചു ജീവിക്കാൻ പറ്റും റ്റെൻ്റെന്ന് പറയുമ്പം ചെറിയ ഒരു കുടിൽ അന്ന് മാത്രമേ ഉള്ളു അതിന് അകത്ത് സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല നമ്മൾ വളരെ ലളിതമായിട്ട് തുച്ഛമായ സൗകര്യത്തിൽ കൂടി ഓരോ ദിവസവും ഇഴഞ്ഞു ഇഴഞ്ഞെന്ന് പറഞ്ഞത് പോലെ ജീവിക്കുന്ന ഒരു പ്രകൃതമാണ് അവിടെ കാണുന്നത് അല്ലാതെ നമ്മുടെ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവച്ചു നമ്മൾ ജീവിക്കുന്നു അടി ച്ചു വാരി ഇടാനോ അല്ലേ ഗസ്റ്റുകളെ സ്വീകരിക്കാനോ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ വിളമ്പി വച്ചു സ്വാതന്ത്ര്യമായിട്ട് കഴിക്കാനോ അല്ലെങ്കിൽ ആവശ്യം ഇഷ്ടപ്പെട്ട ഭഷ്ണ സാധനങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടി ലളിതമായ രീതിയിൽ ചുരുങ്ങി ജീവിക്കുന്ന ഒരു കാലഘട്ടം അനുഭവമാണ് ടെൻറ്റ് ടെൻ്റുകളിൽ താമസിക്കുന്നത് ടെൻ്റെന്ന് പറയുമ്പം പിന്നെ ഒരു ഗുണമുള്ളത് നമ്മൾ ഒരു സ്ഥലത്ത് താമസിച്ചു പിന്നെ അത് പൊളിച്ചു കെട്ടി അധികം തടസ്സമില്ലാതെ പൊളിച്ചു മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടു പോകാൻ പറ്റും ഇന്ന് ഒരു സ്ഥലത്ത് ആണെങ്കിൽ നാളെ ഒരു കിലോമീറ്റർ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരെ താമസിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അത് പൊളിച്ചു കെട്ടി അവിടെ വീണ്ടും സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തു അവിടെ താമസിക്കാം അവിടത്തെ കാര്യങ്ങൾ ഒക്കെ നടത്തി കഴിയുമ്പം മറ്റു സ്ഥലത്തേക്ക് അത് പൊളിച്ചു കൊണ്ട് പോകുന്നു അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പം വീടുകൾ സ്ഥിരമയിട്ട് ഒരിടത്ത് ഉണ്ടാക്കി നല്ലതായിട്ട് വച്ചാൽ പിന്നെ നമുക്ക് അത് പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല അവിടെ ഒക്കെ താമസിക്കണം അല്ലെങ്കിൽ നമ്മൾ അത് വിറ്റു മാറുന്നു ടെൻ്റെന്ന് പറയുമ്പം അങ്ങനെ അല്ല ഒരു മാസം ഒരു ഇടത്ത് താമസിച്ചു പിന്നെ വേറെ സ്ഥലത്ത് കൊണ്ടു സ്ഥാപിക്കുന്നു അവിടെ താമസിക്കുന്നു അവിടത്തെ കാര്യങ്ങളൊക്കെ നടത്തി എന്തെങ്കിലും ഡ്യൂട്ടിക്കൊക്കെ വന്നാണ് അത് നടത്തി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെയുള്ള ഗുണങ്ങൾ അതിനെ കൊണ്ട് ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം പിന്നെ അനുഭവവെന്ന് പറയുന്നത് നമ്മൾ ആ ഏത് സാഹചര്യത്തേയും തരണം ചെയ്യാനായിട്ടുള്ള മനസ്സിന് കപ്പാസിറ്റിയുള്ളവർ മാത്രമാണ് അവിടെ